ഹലോ എവിടെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഏതു സ്ഥലങ്ങളാണ് നിങ്ങൾ സ്റ്റേയ്റ്റിൽ കേരളം മതി കേരളത്തിൽ നമുക്ക് എറണാകുളത്തുണ്ട് ട്രിവാൻഡ്രത്തുണ്ട് പിന്നെ മലബാർ സൈഡുണ്ട് അപ്പം ഏതു സൈഡാണ് വേണ്ടത് വയനാട് വേണമല്ലേ വയനാട് പാക്കേജ് പാക്കേജെന്നു പറയുമ്പോൾ എത്ര ദിവസത്തേക്കാണ് അഞ്ച് ദിവസത്തേക്ക് ഓക്കെ അപ്പോൾ ഒരു മൂന്ന് മൂ അഞ്ച് ദിവസം സ്റ്റേയാണുദ്ദേശിക്കുന്നത് അല്ലേ അഞ്ച് സ്റ്റേ അഞ്ച് സ്റ്റേ ആകുമ്പോൾ വയ വയനാടു മാത്രം മതി ആ ഓ റൈഡിങ്ങ് വേണമല്ലേ ഓഫ് ഓഫ് റോഡ് റൈഡിങ്ങ് ഓഫ് റോഡ് റൈഡിങ്ങ് വേണം അത് ഫുഡ് അങ്ങനെയാണ് നോൺ വെജ്ജാണോ വെജ്ജാണോ നോൺ വെജ് മതിയല്ലേ അപ്പം രാവിലത്തെ ബ്രേക്ക് ഫാസ്റ്റ് വെജ്ജായിരിക്കും ഉച്ചയ്ക്കും ഈവനിങ്ങും നമുക്ക് നോൺ നോൺ വെജ് അറേയ്ഞ്ച് ചെയ്യാം ഓക്കേ അപ്പോൾ നമ്മുടെ പാക്കേജ് എന്ന് പാക്കേജ് പാക്കേജ് അഞ്ച് ദിവസത്തേക്കല്ലെ അഞ്ചു ദിവസത്തേക്ക് നമുക്ക് പാക്കേജ് വരുന്നത് ഏ സീ റൂമാണോ നോൺ ഏ സീ റൂമാണോ ഏ സീ റൂം വിത്ത് ട്രക്കിങ്ങ് ട്രക്കിങ്ങ് റൈഡിങ്ങ് അങ്ങനെ വരുന്നുണ്ട് ഓക്കേ അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മളിവിടെ നിന്ന് മോണിങ് സ്റ്റാട്ട് ചെയ്യുന്നത് ട്രെക്കിങ്ങാണ് ആദ്യം വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടാകും അതു കഴിഞ്ഞ് ഞങ്ങളുടെ ഗൈഡ് ഇതിനേപ്പറ്റി പറഞ്ഞു തരും എവിടെയൊക്കെയാണ് പോകുന്നത് അതിനേപ്പറ്റിയുള്ള വിശദീകരണമായ അത് നിങ്ങൾക്കു തരും അതു കഴിഞ്ഞ് ബസ്സിലായിരിക്കുമാദ്യം ഞങ്ങൾ പോകുക വയനാട്ടിലോട്ടു നമ്മുടെ സെൻ്ററിൽ നിന്ന് ആദ്യം പോകുക അപ്പോൾ വയനാട് ആദ്യം പോകും അതു കഴിഞ്ഞ് ബസ്സിൽ പോയതിനു ശേഷം അവിടെ നിന്ന് ട്രക്കിങ്ങാണ് ജീപ്പിൽ ജീപ്പിൽ ഓഫ് റോഡ് ഓഫ് റോഡ് ട്രക്കിങ്ങാണ് അപ്പോൾ ഓഫ് റോഡ് കയറി വയനാട് ചുരം വയനാട് ചു ചുരം കയറി മുകളിലെത്തി അവിടെ സ്റ്റേയാണ് അവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അതിൻ്റെ സ്റ്റേ വരുന്നത് അപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഫുഡ് ഇപ്പം ഏകദേശം ഒരു ഉച്ചയോട് അനുബന്ധിച്ചായിരിക്കും അവിടെയെത്തുക അവിടെയെത്തുന്നു ഫസ്റ്റ് ബ്രേയ്ക് ഇത് ലഞ്ചുണ്ടാകും അത് നോൺ വെജ്ജായിരിക്കും ബൊഫെ ബൊഫെ മോഡലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ബൊഫേ മോഡലായിരിക്കും ചെയ്തിരിക്കുന്നത് അപ്പം ഫുഡ് കഴിയ്ക്കുക അതു കഴിഞ്ഞിട്ട് സൈറ്റ് സീയിങ്ങായിട്ടൊക്കെ നമ്മൾ പുറത്തിടും അപ്പം അതു കഴിഞ്ഞിട്ട് ഈവനിങ്ങ് റൂമിൽ വരുന്നു സ് സ്റ്റേ ആണ് അടുത്ത ദിവസം രാവിലെ ആയിരിക്കും അടുത്തതിനേപ്പറ്റിയുള്ള ഗൈഡ് നിങ്ങളെ പരിചയപ്പെടുത്തുക ഓക്കേ അപ്പം ഇത് മൊത്തത്തിൽ പാക്കേജ് വരുന്നത് അഞ്ച് ദിവസത്തേക്ക് അൻപതിനായിരം രൂപയാകും ഓക്കെ നിങ്ങൾ ഒന്നും വേണ്ട ഫൈവ് സ്റ്റാർ റൂംസാണ് ഇതിൽ വരുന്നത് ഫൈവ് സ്റ്റാർ റൂം എല്ലാം ഫൈവ് സ്റ്റാർ റൂമാണ് എല്ലാം ഫൈവ് സ്റ്റാർ ഫുഡ്ഡുമാണ് വരുന്നത് അപ്പം ഒരാൾക്ക് ഏകദേശം അവർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ തരുന്നില്ല നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ തരും ആ അവർ ത്രീ സ്റ്റാറിനു താഴോട്ട് ത്രീ സ്റ്റാറിന് ഹൊ താഴെ ആയിരിക്കും അവർ അറേയ്ഞ്ച് ചെയ്യുക നമ്മൾ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് നമ്മൾ റൂമൊക്കെ കാണുമ്പോൾ അതു മനസ്സിലാകും അത് അതുകൊണ്ടാണിത്രയും റേറ്റ് വരുന്നത് റേറ്റ് കുറച്ചു കിട്ടും നമുക്ക് റേറ്റ് കുറച്ചു കിട്ടും അങ്ങനെ ആയിരിക്കുമത് ആ തീർച്ഛയായും